സാറേ ഹലോ ഗുഡ് മോണിംഗ് സാർ സാറേ എൻ്റെ പാൻ കാഡ് എൻ്റെ പേഴ്സൊരാൾ മോഷ്ടിച്ചു അതിൻ്റെ അകത്തായിരുന്നു എൻ്റെ പാൻ കാഡ് അത് അതിൻ്റകത്ത് എനിക്ക് പുതിയൊരു പാൻ കാഡ് വേണം അതിന് സാറെന്നെ സഹായിക്കാമോ അത് എന്തൊക്കെയാ വേണ്ടതെന്ന് എനിക്കറിയത്തില്ല അതൊന്ന് പറഞ്ഞു തരുമോ എന്തൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം എന്തൊക്കെ രേഖകൾ വേണം എന്നൊക്കെയൊന്ന് പറഞ്ഞു തരാമോ പുതിയൊരു പാൻ കാഡെനിക്ക് വേണം അത്യാവശ്യമായിരുന്നു അതെത്രയും പെട്ടെന്നൊന്ന് റെഡിയാക്കി തരാൻ പറ്റുമോ സാറേ പ്ലീസ്